ഞാൻ സെലക്ട് ചെയ്ത പ്രോഡക്ട് മൊബൈൽ ഫോണാണ് ഇതെനിക്ക് നല്ല യൂസ്ഫുള്ളാണ് ഇതിന്റെ ക്യാമറയൊക്കെ നല്ല ക്ലാരിറ്റിയുള്ള ക്യാമറയാണ് എടുക്കുന്ന പിക്ചേഴ്സിനൊക്കെ നല്ല ക്ലാരിറ്റി കിട്ടുന്നുണ്ട് ഞാനെടുത്ത മൊബൈലിന് നല്ല ബാറ്ററി ലൈഫ് കിട്ടുന്നുണ്ട് ടു ഫിഫ്റ്റി സിസ്ത് സ്റ്റോറേജുണ്ട് ട്വൽവ് ജി ബി റാം ഉള്ളതുകൊണ്ട് ഹാങ്ങോന്നും ആവുന്നില്ല അത്യാവശ്യം നല്ല രീതിയിൽ ഗെയിമിങ്ങൊക്കെ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പ്രോഡക്ട് തന്നെയാണ് ഈ മൊബൈൽ ഫോണെന്നു പറയുന്നത് അതുപോലെ ഫോണ് പെട്ടന്നൊന്നും അങ്ങനെ ഹീറ്റാവുന്നു അങ്ങനെയൊന്നും ഇല്ല പിന്നെ ചാർജ് ചെയ്യുമ്പോൾ വേണമെങ്കിലും നല്ല പെട്ടന്നുതന്നെ വളരെ സ്പീഡിൽ തന്നെ ചാർജ് ചെയ്യാൻ പറ്റുന്നുണ്ട് സൗണ്ട് ക്ലാരിറ്റിയും നല്ലതുപോലെ കിട്ടുന്നുണ്ട് പ്രത്യേകിച്ച് നോയ്സും കാര്യങ്ങളും ഒന്നും തന്നെ ഇല്ല എന്തുകൊണ്ടും നല്ല യൂസ്ഫുള്ളാണ് ഈ പ്രോഡക്ട് എനിക്ക്